കേരളത്തിൽ നമുക്ക് അഭിമാനിക്കുന്ന കാര്യമാണ് നാൽപ്പത്തിനാല് പുഴകൾ പുഴകളും അതിനോടൊപ്പം തന്നെ കനാലുകളും തോടുകളും അതിന്റെ കൈവരികളുമൊക്കെ നമുക്ക് ഉള്ളത് കൊണ്ട് എന്നാലത് വൃത്തിയുടെ കാര്യത്തിൽ തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഓരോ വെള്ളപ്പൊക്കം വരുമ്പോഴും നമ്മൾ അതിന്റെ അനന്തരഫലങ്ങൾ കാണുന്നതാണ് അതിന്റെ കരയിലെല്ലാം പ്ലാസ്റ്റിക്കുകളും പ്ലാസ്റ്റിക് ബോട്ടുകളും പ്ലാസ്റ്റിക്ക് മാലിന്യങ്ങള് കൊണ്ട് വളരെയധികം നിറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സിറ്റികളിലെല്ലാരും എല്ലായിടത്തും വെള്ളം ഒരു മഴപെയ്താൽ തന്നെ ഉടനെ തന്നെ വെള്ളപ്പൊക്കം ആയിട്ട് മാറും രൂപാന്തരപ്പെടുന്നത് കാരണം ഈ ഓവുചാലുകൾ പോ ഓവുചാലുകളും ഇതിന്റെ ക എല്ലാം അടഞ്ഞിരിക്കുന്നത് ഈ പ്ലാസ്റ്റിക്ക് മാലിന്യം കൊണ്ടുതന്നെയാണ് ഈ വെള്ളമെല്ലാം ഒഴുകി പോകുന്നതും പുഴകളിലേക്ക് തന്നെയാണ് ഈ പുഴകളിലെ ഇങ്ങനെ അടിഞ്ഞ് കൂടുന്ന മാലിന്യങ്ങളാണ് ഏറ്റവും വലിയ വിനാശകരമായി മാറിയിരിക്കുന്നത് കാരണം ഓരോ വെള്ളപ്പൊക്കവും നമുക്ക് കൂടുതൽ പാടങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത് എത്രയധികം നമ്മള് വൃത്തിയായി നമ്മളുടെ പുഴകളെ സംരക്ഷിക്കണം എല്ലാ ജലസ്രോതസ്സുകളേയും നമ്മൾ അത്രയും കാര്യമായിട്ട് പരിഗണിച്ച് അതിനെ ശുദ്ധമാക്കി ആ വെള്ളം തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ ഇന്ന് മനുഷ്യരുടെ പോപ്പുലേഷൻ കൂടിയത് കൊണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാനായിട്ട് ആർക്കും സമയമില്ല സാഹചര്യവുമില്ല അപ്പോൾ നമുക്ക് നം ഓരോടുത്ത് ഓരോ വ്യക്തിയും അത് നമ്മുടെ തന്നെ ഒരു കടമയാണ് എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മള് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുയ്ക്കുക പ്ലാസ്റ്റിക്ക് ഉപയോഗിച്ചാൽ തന്നെ അത് നശിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മള് ഒരുമിച്ച് സൂക്ഷിച്ചു വയ്ക്കുക എന്നിട്ടത് എന്നാ അതിന് പറയുന്നത് ഹരിതകർമ്മസേനയ്ക്ക് നമ്മള് കൈമാറേണ്ടതുമാണ് അല്ലായെങ്കിൽ നമ്മളിങ്ങനെ വലിച്ചെറിഞ്ഞാല് നമ്മുടെ പുഴകളും തോടുകളുമെല്ലാം മലിനമാകും അതുവഴി നമുക്ക് പല പല രോഗങ്ങളുമുണ്ടാകും എന്നാൽ നമ്മൾ ശ്രദ്ധി ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഈ വെള്ളം ഇന്ന് കുടിക്കാനുള്ള വെള്ളം ഇന്ന് വളരെ അപൂർവമാണ് നമ്മുടെ ജലസ്രോതസ്സിലെ ഒരു മൂന്നുശതമാനം ലോ മ മാത്രമാണ് നമുക്ക് ശുദ്ധജലമായി ശുദ്ധജലമായി ലഭിക്കുന്നത് ഈ ശുദ്ധജലങ്ങൾ ലഭിക്കുന്ന സ്രോതസ്സുകളാണ് നമ്മുടെ പുഴകളും കിണറുകളും കനാലുകളും കായലുകളെല്ലാം തന്നെ പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരു തുള്ളി വെള്ളം നമ്മള് വിലകൊടുത്ത് വാങ്ങിക്കേണ്ട സാഹചര്യമാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത് കാരണം ഇതുതന്നെയാണ് നമ്മൾ പുഴകളും തോടുകളും ശ്രദ്ധിക്കുന്നില്ല നമ്മള് മാലിന്യങ്ങള് എല്ലാം നമ്മള് ഒ ഇതിലേക്കാണ് വലിച്ചെറിയുന്നത് കന്നുകാലികളെ കുളിപ്പിക്കുകയും വാഹനങ്ങള് നമ്മള് വൃത്തിയാക്കുന്നത് എല്ലാം ഈ പുഴകളുടെ ഒക്കെ തീരങ്ങളിലാണ് ഇതെല്ലാം ഒരുപാട് ആരോഗ്യപ്രശ്നങ്ങൾ നമുക്കുണ്ടാവും ആ പരിസ്ഥിതി പ്രശ്നങ്ങളും ഇതുമൂലം ഉണ്ടാകുന്നുണ്ട് നമ്മള് ഓരോ വെള്ളപൊക്കം കഴിയുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നതിത് തന്നെയാണ് പ്ലാസ്റ്റിക്കുകളുടെ അതിഭയാനകമായ ഒരു മാലിന്യം എല്ലാ തീരങ്ങളിലും നമുക്ക് കാണാവുന്നതാണ് എന്നാലിതിലൊന്നും ആരും ശ്രദ്ധിക്കുകയൊ ഒന്നും ചെയ്യുന്നില്ല നമ്മുടെ ബീച്ചുകൾ തന്നെ നോക്കിയാൽ നമ്മുടെ കടൽതീരത്ത് നമ്മൾ പോവുകയാണെങ്കിൽ അവടെ എല്ലാം എത്രയോ വൃത്തികേടുകളായിട്ടുള്ള എല്ലാവരും സൂക്ഷിക്കുന്നത് ഐസ്ക്രീമിൻറ്റെം പിന്നെ പ്ലാസ്റ്റിക്ക് ബോട്ടുകളും അങ്ങനെ എന്തെല്ലാം അവരുടെ കയ്യിൽ കിട്ടുന്ന പ്ലാസ്റ്റിക്ക്കളും അതെല്ലാം അവിടെ വലിച്ചെറിയുകയാണ് ചെയ്യുന്നത് നമുക്ക് മാത്രം ഉള്ളൊരു കുഴപ്പമാണത് എന്നാൽ നമ്മൾ വിദേശ രാജ്യങ്ങളിൽപ്പോയി നോക്കുവാണെൽ അവരുടെ ബീച്ചുകൾ എത്രയോ മനോഹരങ്ങളാണ് ഒരു പ്ലാസ്റ്റിക്ക് തുണ്ടോ ഒര് തുരുമ്പോ ഒന്നും അവര് അവിടെയെങ്ങും വലിച്ചെറിയാറില്ല അവയെല്ലാം അവര് മാലിന്യം സൂക്ഷിക്കേണ്ടത് തന്നെ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ കടൽവെള്ളം പുഴയിലെ വെള്ളം എല്ലാം കണ്ടാൽ നമുക്ക് അറിയാവുന്നതാണ് ഇപ്പോൾ തന്നെ നമ്മള് കണ്ടിരുന്നതാണ് പിന്നെ നദിയിലെ മത്സ്യങ്ങളെല്ലാം ചത്തുപൊങ്ങുന്നത് ഇതെല്ലാം ഈ മ പിന്നെ കെമിക്കലുകള് ചേർന്ന വെള്ളം നമ്മള് പുഴയിലേക്ക് കടത്തിവിടുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതുപോലെ മെ മി ഇപ്പോൾ മത്സ്യങ്ങൾ ചത്തുപോയാൽ അത് അത് അതുപോലെ തന്നെ ആ മത്സ്യങ്ങൾ നമ്മള് കഴിക്കുമ്പോഴും ആ വെള്ളം നമ്മള് ഉപയോഗിക്കുമ്പോഴും നമുക്ക് തന്നെ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലാണിന്നേറ്റവും കൂടുതല് മരുന്ന് വ്യാപാരം ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഒ നമ്മളൊരു സാധാരണ ഒരു ക്ലിനിക്കിൽ പോയാൽ തന്നെ എന്തുമാത്രം വലിയ ക്യു ആണ് നമ്മൾ കാണപ്പെടുന്നത് ഒന്ന് ഏറ്റവും വലിയ പ്രശ്നം തുടങ്ങുന്നത് തന്നെ നമ്മുടെ ജലത്തിൽ നിന്നാണ് ഈ ജലം കൂടിയേ നമുക്ക് തീരു കൃഷി ചെയ്യുന്നതിനും നമുക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതിനും എല്ലാം നമുക്ക് ഈ ശുദ്ധജലം തന്നെ ആവശ്യമാണ് പക്ഷേ ഇതൊന്നും ഇന്ന് ലഭിക്കാത്ത സാഹചര്യത്തിൽ നമുക്കൊരുപാട് ആരോഗ്യപ്രശ്നങ്ങളൊണ്ടാകുന്നുണ്ട് ഇത് നമ്മള് ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഇതിനേറ്റവും പ്രധാനപ്പെട്ട വഴി അത് നമ്മൾ വരുംതലമുറയെ നമ്മളത് പഠിപ്പിക്കേണ്ടതാണ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കുകളൊന്നും വലിച്ചെറിയാതെ നമ്മൾ അതിന്റെ ഉറവിടങ്ങൾ തന്നെ നമ്മൾ അത് സംസ്ക്കരിക്കുക എന്നുള്ളതാണ് നമ്മള് പ്ലാസ്റ്റിക്കുകൾ കഴിവതും നമ്മള് ഉപയോഗിക്കാതിരിക്കുക അതുതന്നെയാണ് ഏറ്റവും വലിയ ഇത് സംരക്ഷിക്കാനുള്ള ഏറ്റവും വലിയ ഗുണം പ്രധാനകാര്യം അതിൽ നമ്മളെല്ലാവരും ഓരോ വ്യക്തിയും അവനോന്റെ കടമയാണ് എന്ന് തന്നെ വിശ്വസിച്ച് കൊണ്ട് അത് പ്രാവർത്തികമാക്കിയാൽ മാത്രമെ നമുക്ക് പുഴകളെ വൃത്തിയാക്കി സൂക്ഷിക്കാനും വരുംതലമുറയ്ക്ക് ശുദ്ധജലം ലഭിക്കാനുള്ള ഒരു സ്രോതസ്സായിതിനെ മാറ്റാനും സാധിക്കുകയുള്ളു അല്ലായെങ്കിൽ നമ്മളിപ്പോൾ ഈ സി ഈ ഒരു തലമുറ കഴിഞ്ഞാൽ അടുത്ത വരുംതലമുറകൾക്ക് ശുദ്ധജലം ലഭിക്കാനായിട്ട് ഒരു രക്ഷയുമുണ്ടാവുകയില്ല വിദേശ രാജ്യങ്ങളിൽ ചെയ്യുന്നത്പോലെ കടൽവെള്ളം ശുദ്ധീകരിച്ച് നമ്മൾ എടുക്കേണ്ട കാര്യങ്ങൾ ഒരു ഒരു സാഹചര്യത്തിലേക്ക് നമ്മള് എത്തിപ്പെടാറുണ്ട് അതുകൊണ്ട് നമ്മളെല്ലാവരും അതിലേക്ക് ബോധവാന്മാരാക്കണം എന്നാണ് എനിക്ക് എന്റ അഭിപ്രായം